ബ്രഡ്ഡും ടീയോ ബ്രഡ്ഡും ടീയും മാത്രം മതിയോ വേറെ ഒന്നും വേണ്ടേ

ഈ വീട്ടിൽ ഈ ഹോട്ടലിലോട്ട് വിളി ആ അപ്പം ലഖുവായിട്ട് ഉള്ളതോ ലഖുവായിട്ടുള്ളത് ഇവിടെ പെറോട്ട ഉണ്ട് പിന്നെ ബീഫ് കറി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് മറ്റ് ചിക്കൻറെ ഐറ്റംസ് എല്ലാം ഉണ്ട് മ മട്ട അങ്ങനെയുള്ള ചെറിയ ഇതൊക്കെ ഉണ്ട് കോസ്റ്റ്യൂം ഉള്ള ഒന്നും ആവശ്യമില്ല ലഖുവായിട്ട് അല്ലേ നിങ്ങൾക്ക് ഓ ലഖുവായിട്ടുള്ളത് പരിപ്പുവട പരിപ്പുവട ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഏത്തയ്ക്കാപ്പം ഉണ്ട്

ഏത്തയ്ക്കാപ്പം ഫ്രഷ് ചൂടോടെ ഉള്ള സാധനമാണ് സാർ ആവശ്യമുള്ളത് വന്ന് ഇവിടെ വന്ന് ഹോട്ടലിൽ വന്ന് വന്നാൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നുവിടും വന്ന് കഴിക്കാം എങ്ങനെയാണ് പാർസൽ ആണോ

ആ ഉണ്ട് ഉണ്ട് ഉണ്ട് തന്നുവിടാം ആ ആ തന്നുവിടാം അതിന് എക്സ്ട്രാ ചാർജ് ആവും സാറേ കേ കേട്ടോ സാറേ എക്സ്ട്രാ ചാർജ് ആവുവേ അത് ഞങ്ങൾ എക്സ്ട്രാ അമ്പത് രൂപ നൂറ് രൂപ കൂടുതൽ മേടി ഈ ഇതിനകത്ത് വാ ഇതിനകത്ത് വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്കവിടം വരെ പോയി യാത്രാ ചിലവൊക്കെ വരുന്നതല്ലേ ഓക്കെ ശരി ഓക്കെ ശരി ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ തരാമല്ലോ ആ കുഴപ്പമില്ല ആ വന്നേക്കാം കേട്ടോ ഓക്കെ സാർ